ഞാൻ ആർക്കും കവിത ഇതുവരെ സമ്മാനമായിട്ട് എഴുതിക്കൊടുത്തിട്ടില്ല കാരണം എനിക്കതങ്ങനെ എഴുതാനായിട്ട് അറിയില്ല ഞാൻ സാധാരണആയിട്ട് അങ്ങനെ കവിതകളോ ഒന്നും എഴുതാറില്ല കഥയെഴുതും കഥയൊക്കെ എഴുതാറുണ്ട് പക്ഷെ കവിതകളൊന്നും എഴുതാൻ എനിക്ക് അറിയത്തില്ല കാരണം കവിതയിലുള്ള ആ സംസ്കൃതം കലർന്ന വാക്കുകളാണെങ്കിലും ഒന്നും അത് ചിലപ്പോഴൊന്നും കിട്ടാറില്ല അല്ലേ കവിത എഴുതിയാല് തന്നെ അതിൻ്റെ അർത്ഥവും കിട്ടാറില്ല അതുകൊണ്ട് അങ്ങനെ എഴുതുക നേരത്തേതൊട്ടേ അങ്ങനൊന്നും എഴുതാറില്ല അതുകൊണ്ടെനിക്ക് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് ഞാൻ എഴുതിയിട്ടില്ല ഇതുവരെ കവിതകളൊന്നും അതുകൊണ്ടുതന്നെ എനിക്ക് അറിയുകയും ഇല്ല പിന്നെ സമ്മാനമായിട്ട് ഇതുവരെ ആർക്കും എഴുതിയിട്ടില്ല അല്ലാതെ എഴുതിയിട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലാതെ കവിതയൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല